നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇന്ന് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർ കൂടുതലും മറ്റു സംസ്ഥാനങ്ങളിലോ അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ പോകാനാാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ ഒരു ഉന്നതമായ വിദ്യാഭ്യാസം നേടാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതിന് പല കാരണങ്ങളും ഉണ്ടാവാം കൂടുതൽ നമുക്കറിയാം യൂറോപ്പ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള മക്കൾ ഹയർ എജ്യൂക്കേഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് രണ്ടാളും ഉണ്ട് അതുപോലെ അതുപോലെ മുംബൈ ബാംഗ്ലൂർ ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മുടെ നാട്ടിലെ മക്കളെ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് എന്തുകൊണ്ടായിരിക്കാം അവർ നമ്മുടെ നാട്ടിലെ നിന്നും വിദ്യ അഭ്യസിക്കാതെ മറ്റു നാടുകളിലേക്ക് പോകുന്നത് അത് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു ഘടകമാണ് അവർക്ക് ഇവിടെ പഠിച്ചൂകൂടെ ഇവിടെ പഠിച്ചാലും അവർ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം കിട്ടുകയില്ലെ എന്നാൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നാട്ടിൽ നിന്നും നേടുക എന്ന് പറയുമ്പോൾ അത് ഒരു മോശം കാര്യമായിട്ടാണ് അവർ എടുക്കുന്നത് എന്നാൽ കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനത്തിൽ പോയി പഠിക്കുക ഉദാഹരണത്തിന് എൻ്റെ മോൾ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ മോൾ മുംബൈയിൽ പഠിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് എന്തോ വലിയൊരു കാര്യമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം കാണുന്നത് യഥാർത്ഥത്തിൽ അതൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മക്കൾ സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും നല്ല രീതിയിൽ ഉള്ള വിദ്യാഭ്യാസം കിട്ടേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് കാരണം നാളെയുടെ തലമുറയാണ് അവർ അവരാണ് നമ്മുടെ ലോകത്തെ നാളെ നയിക്കേണ്ടത്

അവർക്ക് കൊടുത്താൽ